ഉൾനാടുകളിലും പട്ടണത്തിലുമുള്ള കളികൾ തമ്മിൽ എന്താണു വ്യത്യാസം എന്നു വച്ചാൽ ഉൾനാടുകളിൽ എല്ലാം ശാരീരികത്തിന് ശരീരം കൊണ്ടുള്ള കളി അതായത് ശരീരത്തിന് വിയർപ്പൊഴുക്കുന്ന കളി അല്ലെങ്കിൽ ശരീരത്തിന് ശരീരം കൊണ്ട് അധികം അങ്ങനെ ഇതൊന്നുമില്ലാത്ത സാമഗ്രികളുടെ ആവശ്യമില്ലാത്ത കളികളാണ് ഉൾനാടുകളിൽ ഉള്ളത് അതെന്ത് കളിയെടുത്ത് നോക്കിയാലും ശരി കാരണം സാധനങ്ങളൊന്നും വേണ്ട ക്രിക്കറ്റ് ബോളോ ഇതൊന്നും ഇല്ലാതെതന്നെ കളിക്കാനുള്ള പരിപാടികൾ ഉണ്ട് എന്തുവേണമെങ്കിലും കളിക്കാം ഒരുപാട് കളികളുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വക കളികളാണ് പട്ടണത്തിൽ ഉള്ളത് മറിച്ച് പട്ടണത്തിൽ മറ്റു ഉൾനാടുകളിൽ ഉള്ളത് മറിച്ച് പട്ടണത്തിലുള്ള കളി എന്നു പറയുന്നത് എല്ലാം ഇപ്പോൾ ക്രിക്കറ്റ് കുറച്ചു സ്ഥലം മതി അതിനുള്ള മറ്റ് റോഡിൽ ആണെങ്കിലും അവർ അതു കളിക്കും അവർക്ക് കളിക്കാൻ അത്രയധികം സ്ഥലം ഒന്നും ഇല്ല പിന്നെ ഇപ്പോൾ കുറെ ഗ്രൗണ്ടുകളൊക്കെയുണ്ട് ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി കളിക്കാം എല്ലാ കളികളും കളിക്കാം എന്നല്ലാതെ അത് അതിൽ പോയി അതിനായിട്ട് മെനക്കെട്ട് പോയി കളിക്കണം കോമൺ ആയിട്ട് നമ്മുടെ വീടിനോട് അനുബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലം കുറവായതുകൊണ്ട് ഇപ്പോൾ ഈ പട്ടണത്തിൽ ഉള്ളവർക്ക് അധികവും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികളാണ് നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ കളികൾ തമ്മിലുള്ള വ്യത്യാസം കളികൾ തമ്മിലല്ല പക്ഷേ കളിക്കാനുള്ള സൗകര്യങ്ങൾ തമ്മിലാണ് ആ വ്യത്യാസം എന്നു പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പക്ഷേ ഉൾനാടുകളിൽ കളികൾ പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലുള്ള കളികളാണ് പട്ടണത്തിൽ ഉള്ളവർക്ക് പുതിയ കാലഘട്ടത്തിന്റേതായ കളികളാണ് കൂടുതൽ